എൻ്റെ പ്രദേശത്തെ ഒരു സാങ്കേതിക സഹായ സംവിധാനമാണ് അക്ഷയ കേന്ദ്രം ഇതുവഴി മുൻപ് ചെയ്തിരുന്ന പല കാര്യങ്ങളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോൾ പറയുയാണെങ്കിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് മുതലായവ വാങ്ങുന്നതിന് നമുക്ക് വില്ലേജ് ഓഫീസിൽ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ അക്ഷയ കേന്ദ്രത്തിൽ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു തരുകയും അത് നമുക്ക് അപ്പ്രൂവ് ആയി കഴിയുമ്പോൾ നമുക്കത് പ്രിൻറ് ഔട്ട് എടുക്കേണ്ട ആവശ്യമാണ് ഉള്ളത് നേരത്തെ മുൻപായിരുന്നു എങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കേണ്ടൊരു അവസ്ഥയായിരുന്നു അതുമല്ലെങ്കിൽ അവിടുത്തെ തിരക്ക് ഉദ്യോഗസ്ഥന്മാരുടെ തിരക്ക് മൂലം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ആയിരിക്കും നമുക്ക് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വൈകുന്നേരം വീട്ടിൽ പോയി കഴിഞ്ഞാലും വീട്ടിലിരുന്ന് ഇത് അപ്പ്രൂവ് ചെയ്യാം അപ്പ്രൂവ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയോ അല്ലെങ്കിൽ കഫെകളിൽ പോയോ നമുക്കത് പ്രിൻറ് ഔട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിലും പ്രിൻറ് ഔട്ട് എടുക്കാൻ സാധിക്കും ഇത് ഈ സംവിധാനം മാത്രമല്ല നമുക്ക് ഒരു പി എസ് സി ക്ക് അപ്ലൈ ചെയ്യുന്നതിനും പിന്നെ പെൻഷൻ്റെ അപേക്ഷ എൻട്രൻസ് അപ്ലൈ ചെയ്യുന്നതിന് പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് മുതലായവയ്ക്ക് നമുക്ക് അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഇൻറ്റർനെറ്റ് കഫേ നമുക്ക് വേണമെങ്കിൽ ആശ്രയിക്കാവുന്നതാണ് മുൻപ് ഇപ്പം പിഎസ്സിക്ക് ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി ആപ്ലിക്കേഷൻ ഫോം മേടിച്ച് അത് ഫില്ല് ചെയ്ത് നമുക്ക് അയക്കണം ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം ഇതുവഴി നമുക്ക് വളരെയധികം സമയം ലാഭമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ പോയാലും നമുക്ക് നമ്മുടെ കാര്യം സാധിക്കണമെന്നില്ല കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നെറ്റിൻ്റെ അഭാവത്തിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് നടക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമുക്ക് ചില അത്യാവശ്യ സംഭവങ്ങൾ ചെയ്യാൻ പറ്റാതാവുകയും അങ്ങനെ വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കടകളിൽ ഉപയോഗിക്കുന്ന ഈ പോസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നു നമ്മുടെ റേഷൻ വാങ്ങുന്നതിന് നമ്മുടെ ഫിംഗർ പ്രിൻറ് വെച്ചിട്ടാണത് നമ്മുടെ റേഷൻ വാങ്ങുന്നത് പക്ഷേ അവിടെയും നമ്മളെ കുറെ നേരം ക്യൂ നിന്ന് കഴിഞ്ഞ് നമ്മുടെ ഊഴം എത്തുമ്പോഴായിരിക്കും റേഞ്ചിൻ്റെ പ്രശ്നം മൂലം നമുക്ക് അത് ചെയ്യാൻ പറ്റാതെ വരുകയും അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ സ നമ്മുടെ ഈ സാങ്കേതിക സഹായ സംവിധാനം നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ വളരെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്